വിവാഹങ്ങളിൽ വധുവിന് സാധാരണ ഗോൾഡ് കൊടുക്കുന്നവരുണ്ട് ഇപ്പോൾ കസിൻസ് ഒക്കെയാണെങ്കിൽ ഗോൾഡ് ആണ് കൊടുക്കുക സ്ത്രീധനം കൊടുക്കുന്നവരുണ്ട് സ്ത്രീധനമായിട്ട് കാറും പൈസയും സ്വർണ്ണവുമൊക്കെ കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് പിന്നെ സാരി അങ്ങനെയുള്ള സാധനങ്ങളും കൊടുക്കുന്നവരും ഉണ്ട്